ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഗതാഗത സംവിധാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഗതാഗത സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ അതായത് നല്ല രീതിയിലുള്ള റോഡുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എല്ലാം ആറുവരിപ്പാതയാക്കി ഇപ്പം നമുക്ക് കോഴിക്കോട് ജി ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആറുവരിപ്പാത റോഡുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമാണിപ്പോൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നേ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എയർപോർട്ട് വിമാന താവളങ്ങൾ അങ്ങനത്തെ നമുക്കിപ്പോൾ സൗകര്യങ്ങൾ യാത്രാ സൗകര്യങ്ങൾ വിമാനത്താവളങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ പറയാം പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് അതായത് നമ്മുടെ നമുക്കിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ടാക്സി കാര്യങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അവൈലബിളാണ് അപ്പോൾ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ സിറ്റിയെന്ന് അറിയപ്പെടുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഓരോരുത്തരുടെ ദൈനംദിന ജീവിതങ്ങളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗതാഗതങ്ങൾ കൊണ്ടുള്ളതാണ് പിന്നെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പല രീതിയിലുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ നമുക്ക് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അവൈലബിളാണ്